ഇപ്പോൾ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നുണ്ട് കാരണം എന്തെന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമുക്കെന്തായാലും മലയാളും ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും പഠിപ്പിക്കണം പിന്നെ അതിനനുസരിച് വേറെ ഭാഷകളും പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ളീഷും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തായാലും മാതൃഭാഷ എന്തായാലും നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുട്ടിയും സംസാരിക്കും നമ്മളിപ്പോൾ വേറൊരു ആളാണെങ്കിലിപ്പം കന്നടയിൽ ജനിച്ച് വളർന്ന ആളാണെങ്കിൽ നമ്മളിപ്പം കന്നടയാണ് സംസാരിക്കുന്നത് എങ്കിൽ ആ കുട്ടി കന്നടയായിരിക്കും സ്വാഭാവികമായിട്ടും സംസാരിക്കുക ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മുടെ ഒരു മദർ ടങ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലയാളാണപ്പം മലയാള ഭാഷയാണ് കൂടുതലും നമ്മൾ സംസാരിക്കുന്നത് അപ്പം നമ്മളുടെ കുട്ടികളെന്തായാലും മലയാളം സംസാരിച്ചിരിക്കണം കാരണം നമ്മൾ മലയാളികൾ മലയാളം സംസാരിക്കാതായിട്ട് ആരും ഇല്ല നമ്മളിപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ എല്ലാവരും മലയാളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും സംസാരിക്കുക അപ്പോൾ നമ്മളുടെ കുട്ടി എന്തായാലും മലയാളം സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നേണ് അപ്പം എന്തായാലും മലയാളം പഠിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറയാം